ഞങ്ങളുടെ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട കലാരൂപങ്ങളെന്ന് പറയുന്നത് തെയ്യം തിറ ഇതൊക്കെയാണ് അപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ ഉത്സവ കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിൽ ആൾക്കാർ ഈ കലാരൂപങ്ങൾ കൊണ്ട് വരുന്നതും അവർ നൃത്തം വെക്കുന്നതും ഒക്കെ പരമ്പരാഗതമായിട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉത്സവങ്ങളുടെ സമയത്ത് ഇങ്ങനെ കൊടിയേറ്റം സമയത്തൊക്കെ എന്താ പറയുക ഘോഷയാത്രകളുടെ കൂടെയൊക്കെ ഈ പറഞ്ഞ പോലെ തെയ്യം തിറ അതൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് ആ ഒരു തനത് കലാരൂപം അത് ഇപ്പോഴും നിലനിൽക്കു നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇവരുടെയെന്ന് പറയുമ്പം ഈ ഒരു കലാരൂപങ്ങൾ നമുക്ക് ഭാവിയിൽ നമ്മുടെ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഉത്സവങ്ങളിലേക്ക് ഒതുങ്ങി എങ്കിൽ പോലും എന്താ പറയുക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തലമുറകൾക്കൊക്കെ എന്തു ചെയ്യാറുണ്ട് ഇത് കാണാറുണ്ട് അവർ അവരിങ്ങനെ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ചരിത്രങ്ങളെ പറ്റി പറഞ്ഞ് കൊടുക്കാനും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് കൊടുക്കുക പറഞ്ഞ് കൊടുക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമാണ് കാരണം അവരും ഇതറിഞ്ഞിരിക്കണം